സ്റ്റാമ്പുകളും നാണയങ്ങളും ഒക്കെ ശേഖരിക്കുന്നതിൻ്റെ വിദ്യാഭ്യാസ മൂല്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണ്ടത്തെ സ്റ്റാമ്പുകളും കാര്യങ്ങളൊന്നും നമുക്കിപ്പഴും കിട്ടാനില്ല അതായത് അത് പഴയതൊക്കെയാണ് അപ്പം നമുക്ക് ഇപ്പം അതൊന്നും അവൈലബിൾ അല്ല അപ്പം പണ്ട് ശേഖരിച്ചവർക്കൊക്കേന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ഇപ്പത്തെ കാലത്ത് കുട്ടികളൊന്നും അതൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതായത് പണ്ടത്ത കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതുപോലെ തന്നെയാണ് ഈ നാണയങ്ങള് കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ അണ അതായത് അഞ്ച് പൈസ പത്ത് പൈസ അങ്ങനത്തെയൊക്കെയാണ് ആ ഇപ്പോഴത്തെ പത്ത് ഇരുപത് രൂപ നൂറ് രൂപ ഒക്കെയുള്ളതിന് പണ്ട് അഞ്ച് അണ എട്ടണ എന്നൊക്കെയാണ് പറയുക അതതിനോ അതിൻ്റെതായ മൂല്യം പൈസയ്ക്ക് അന്നുണ്ട് പിന്നേന്ന് വച്ചിട്ടുണ്ടങ്കില് നമുക്കെന്താണ് പഠിക്കാനുള്ളതെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതായത് കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അപ്പം നമുക്കിങ്ങനെ നാണയ ശേഖരണം സ്റ്റാമ്പ് ശേഖരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമുക്കതൊക്കെ കാണാൻ പറ്റും അതായത് കാണാത്തവർക്കത് കാണാൻ പറ്റും അതിനേ കുറിച്ച് കൂടുതലായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും അപ്പം അതൊക്കെ ഒരു ഹെൽപ് തന്നെയാണ് അതായത് മറ്റു കുട്ടികൾക്ക് അതായത് ഇതൊന്നും കാണാത്ത കുട്ടികൾക്ക് കാണാനുള്ള ഹെൽപ് കാര്യങ്ങളൊക്കെ അതിൽ നിന്നും ലഭിക്കുന്നതാണ്